ഹലോ ആ അതെ അതെയല്ലോ

അതെയോ ആ ആ ആ ചെയ്യാലോ ആ ആ ആ ആ ആ ആ ആ ചെയ്യും ആ അതിപ്പോൾ അങ്ങനെ അങ്ങനെ ചോദിച്ചെങ്കിൽ ഇപ്പോൾ പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾക്കത് നോക്കാതെയും പിന്നെ അതിപ്പോൾ ആശാരിയും പിന്നെ അതെല്ലാം എല്ലാവരും ചോദിച്ചിട്ട് എല്ലാം നോക്കിയിട്ടല്ലേ പറയാൻ പറ്റുമത്രേ ആ ആ ആ ഏകദേശം മ് ഏകദേശം ആ ആ ആ ആ ആ ആ ആ ആ ശരി ആ ആ ഞാൻ വരാമല്ലോ ഒരു ദിവസം മ് ആ ആ ആ ആ ആ ആ ആ ആ ആ അതിപ്പോൾ ഇങ്ങനെ കൂട്ടാൻ പറ്റില്ലല്ലൊ ഇപ്പോൾ വസ്തു നോക്കാതെ അങ്ങനെയെല്ലാം നോക്കിയിട്ടല്ലേ പറ്റൂ ഇത് അതെല്ലാം നോക്കിയിനോ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ നോക്കാം അത് നമുക്ക് നോക്കാം വന്നിട്ട് ഇപ്പം ഞാൻ വരാം ആശാരിയേയും കൂട്ടിയിട്ട് വന്നിട്ട് അങ്ങനെ നോക്കിയിട്ട് എല്ലാം നോക്കിയിട്ട് ചെയ്യാം പിന്നെ എസ്റ്റിമേറ്റിപ്പോൾ പറയാൻ ആ ഇപ്പോൾ ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച മറ്റോ വന്നെങ്കിൽ മതിയാവുമോ ഞായറാഴ്ചയെ സൗകര്യം ഉണ്ടാവുകയുള്ളൂ ആ

അതെയോ ആ ഉച്ചക്ക് ശേഷം ആ നാല് മണി കഴിഞ്ഞിട്ട് അങ്ങനെ വരാം ഞാനപ്പോൾ ഞായറാഴ്ച്ച ഫ്രീയാണ് ആ അപ്പോൾ ആ ആ ആ ആ ഓക്കെ ആ ഇല്ലില്ല വരും വരും ഓക്കെ ആ ആ ആ ആ എത്താം